ഇപ്പൊൾ എനിക്ക് ഒത്തുപോകാന് ബുദ്ധിമുട്ടുള്ള ആളുവായിട്ടൊരു ജോലി ചെയ്യാൻ വേണ്ടീട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാലെനിക്ക് പല രീതിലുള്ള പ്രശ്നങ്ങള് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊൾ ആ അതിനനുസരിച്ചുള്ളൊരു ഒരു ജോലീം കാര്യങ്ങളല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇപ്പൊൾ എനിക്ക് എൻ്റെ സാലറിക്കനുസരിച്ചുള്ള ഒരു ജോലീം കാര്യങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാനിവിടെ ഒരു എൻ്റെ വീടിൻറ്റടുത്തൊരു സൊസൈറ്റിലൊക്കേയിരുന്നു വർക്ക് ചെയ്തു കൊണ്ടിരുന്നത് അപ്പൊൾ അവിടുത്തെ ഒരു സെക്രട്ടറി കാര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മക്ക് നല്ലൊരു ജോലീം കാര്യങ്ങളൊക്കെ ഭയങ്കരായിട്ട് ഇണ്ടായിരുന്നു അപ്പം നമ്മള് ഒരു അഞ്ചരേക്കെ ആകുമ്പത്തേക്ക് എണീറ്റ് പാ ഇത് പാല് കളക്ട ചെയ്യാൻ വേണ്ടീട്ട് പോണം അങ്ങനെ പല രീതിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളക്കെ ഇണ്ടായിരുന്നു ഇപ്പ പാല് ചിലപ്പം ഷോർട്ടായി കഴിഞ്ഞാല് നമ്മളെ സാലറിയിൽ നിന്നക്കെ പിടിക്കണ്ട ഒരവസ്ഥേമ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഇണ്ടായിരുന്നത് പിന്നെ നമുക്ക് ജോലീൻ്റെ പുറമെ നമുക്ക് പല രീതിലുള്ള പണികളും കാര്യങ്ങളൊക്കെ പുള്ളി തെരുവായിരുന്നു അപ്പൊൾ അത് ഭയങ്കര പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഞാനതിന് പരിഹരിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഞാന് വേറൊരു ജോലിക്ക് ചേരുകയാണ് ഇണ്ടായത്